ഹലോ മേഡം ഹലോ നമസ്കാരം മോഡൽ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ അല്ലേ മേഡം എൻ്റെ മേഡം എൻ്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ വേണമായിരുന്നു സ്കൂളിലേക്ക് എത്രയാകും അഡ്മിഷൻ ഫീസ് ഒന്ന് പറയാമോ ആണോ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവുമോ ഞങ്ങൾ കുറച്ച് ഒക്കെ മേഡം പിന്നെ സ്കൂൾ യൂണിഫോമൊക്കെ അവിടെ നിന്ന് തരുന്നതാണോ ഞങ്ങൾ വാങ്ങിക്കണോ ആണല്ലേ സ്കൂൾ ബസിൻ്റെ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടോ ഇല്ല അല്ലേ ഞങ്ങൾ കുറച്ച് ലോങ്ങാണ് അപ്പോൾ സ്കൂൾ വാൻ ഫീസ് ഒക്കെ എങ്ങനെയാണ് ഓക്കേ ആണല്ലേ ആ ആ ആണോ ഓക്കേ അപ്പോൾ വാനിൻ്റെ ടൈം ഒക്കെ അത് ആണോ ആ ആണല്ലേ ആ ഓക്കേ മേടം ഓക്കേ ശരി ശരി എന്നാൽ ഹലോ ഹലോ മേഡം വേറെ അങ്ങനെയല്ല എൻ്റെ കുട്ടി ഇപ്പോൾ വേറെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ മാറ്റി ചേർക്കുകയാണ് അപ്പോൾ പഠിപ്പൊക്കെ കുറച്ചു ബാക്കോട്ടാണ് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസസ്സ് അങ്ങനെ എന്തെങ്കിലും ആ ആ ആ ആ ഓക്കേ ആണല്ലേ ആ ആ ആ ആ ഉം ഉം ആണല്ലെ പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഇങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ യോഗ അങ്ങനെ എന്തെങ്കിലും കരാട്ട ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടോ എൻ്റെ കുട്ടിക്ക് ഡാൻസ് കുറച്ചു കൂടുതലായി ആണോ ഓക്കേ അപ്പോൾ ക്ലാസ് ടൈം എങ്ങനെയാണ് രാവിലെ പത്ത് മണിയാണോ ഓക്കേ ശരി